കർക്കടക മാസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ചെടികൾ നടാം അത് നല്ല മഴക്കാലം ഉള്ള സമയമായിരിക്കും ആ ചെടികൾ നടുമ്പോൾ നല്ല വിത്തുകൾ ഉണ്ടാകുകയും അതിന് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള കായിഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് നല്ല നല്ല ദിവസങ്ങൾ നോക്കി അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം ഏറ്റവും നല്ല വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കായിഫലകൾ ഉണ്ടായിരിക്കുന്നതാണ് ആ കായിഫലങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അത് നല്ല രീതിയിൽ വളങ്ങൾ ചെയ്യുകയും മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതിന് നല്ല രീതിയിൽ ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏത് വൃക്ഷത്തിനാണെങ്കിലും നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുകയും മഴ കിട്ടുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള നല്ല രീതിയിലുള്ള ഗുണം നമുക്ക് കിട്ടുന്നു മഴയോ മഴയൊന്നും പ്രശ്നമല്ല ചെടികൾക്ക് നടാൻ എപ്പം വേണമെങ്കിലും നമ്മൾക്ക് നടാം അങ്ങനെയുള്ള ഉപയോഗം നമ്മൾ ചെയ്താൽ അതിനുള്ള പലങ്ങൾ നമ്മൾക്ക് കിട്ടും ആ കിട്ടുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ല ഗുണമുള്ള പച്ചക്കറികളും നമുക്ക് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ല പച്ചക്കറിയെ ഇങ്ങനെയുള്ള മഴയക്കാലത്തൊക്കെ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നതായിരിക്കും